എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പിന്നെ അതായത് പാട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കലാകാരെന്ന് വെച്ചാൽ കലാകാരിയും കലാകാരനും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ചിത്രേനേം യേശുദാസിനേയുമാണ് അവരൊക്കെ പാടിയ പാട്ടുകൾ എന്താണ് ഇപ്പം ഞാൻ പറയാം എനിക്ക് യേശുദാസ് പാടിയതിൽ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഹരിവരാസനം ആണ് അത് കേൾക്കാൻ തന്നെ എന്തു രസമാണ് നമുക്ക് എപ്പോഴും എത്ര കേട്ടാലും നമുക്ക് മതി വരാത്തൊരു പാട്ടാണ് ഹരിവരാസനം ഹരിവരാസനം വിശ്വമോഹനം ഹരിദധീശ്വരം ആരാധ്യപാദുകം ആ പാട്ട് കേൾക്കാൻ തന്നെ എന്ത് രസമാണ് അതേപോലെ ചിത്രേൻ്റെ ചിത്രേൻ്റെ ഒരുപാട് പാട്ടുകൾ ചിത്രേൻ്റെ പാട്ടൊക്കെ കേട്ടിട്ട് എത്രയോ അതായത് നമുക്ക് ഇങ്ങനെ എത്ര ഉറക്കം വരാതെ ഇരിക്കുവാണെങ്കിൽ നമുക്ക് ചിത്രേൻ്റേം യേശുദാസിൻ്റെ ഒക്കെ രണ്ട് മൂന്ന് പാട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ അറിയാണ്ട് നമ്മൾ ഉറങ്ങിപ്പോവും അത്രയ്ക്കും പിന്നെ അതായത് നമുക്ക് മനസ്സിൽ തട്ടുന്ന ഏത് പാട്ട് ഇപ്പം അവർ പാടിയ എല്ലാ പാട്ടുകളും അത്രയ്ക്ക് മനോഹരമാണ് അത് കേൾക്കാൻ തന്നെ ഭയങ്കര രസമാണ്